ഞാൻ കുറച്ച് വളകൾ വാങ്ങിച്ചു അത് വളരെ മോശമാണ് കാരണം അതിൻ്റെ കളറെല്ലാം ഫെയ്ഡെയ്തിരുന്നു അത് എനിക്ക് വളരെ വലിപ്പമാണ് ഞാൻ പറഞ്ഞ സൈസിലല്ലാ അവര് ആ വള എനിക്ക് തന്ന് വിട്ടത് അതുകൊണ്ട്തന്നെ അത് എൻ്റെ കയ്യിൽ ഓടിക്കളിക്കുകയായിരുന്നു അത്രയും ലൂസാണ് മാത്രമല്ല ആ വളകൾടെ കളറൊക്കെപ്പോയി കൊ പോവാൻ തുടങ്ങി വളരെ വെള് എത്ര കാലം ൽ ന്ന കുറെ കാലം ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് അത് വാങ്ങിച്ചത് എന്നോട് പറഞ്ഞത് അവര് വാ തരുമ്പോൾ പക്ഷേ അത് വളരെ പെട്ടന്ന് ഫുൾ കളർ എല്ലാം ഫെയ്ഡായി നാശമായി മാത്രമല്ല എനിക്ക് അതിന് കൂടുതൽ വില കൊടുക്കേണ്ടി വന്നു മാർക്കറ്റിലുള്ള വിലയെക്കാട്ടിലും ലാഭം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് ഓൺലൈനായിട്ട് വാങ്ങിച്ചത് പക്ഷേ മാർക്കറ്റ് വിലയെക്കാട്ടിലും കൂടുതൽ വില എൻ്റെ കയ്യിൽ നിന്ന് അവര് ഈടാക്കുകയും ചെയ്തു അത് ഞാൻ ഉദ്ദേശിച്ച അത്ര രീതിയിൽ നല്ലതും ആയില്ല പെട്ടന്ന് കേടും വന്നുപോയി